വടക്കൻ കേരളമായത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇവിടുത്തെ പ്രദേശങ്ങളിൽ വിനോദ പരിപാടികളെന്ന് പറയുന്നത് കലാ കായികം സിനിമ എന്ന് തുടങ്ങിയവയാണ് കലയിൽ വരുന്നത് തെയ്യം തെയ്യം കെട്ടുക എന്ന് പറയുന്ന ഒരു കലാരൂപത്തെ സ പ്രതിനിധാനം ചെയ്യുകയാണ് ഇവിടെയുള്ളവർ തെയ്യം കെട്ടുക എന്ന് പറഞ്ഞാലതൊരു കലാരൂപത്തെ അനുസ്മരിപ്പിക്കലാണ് പിന്നീട് വരുന്ന ചിത്രം വരകൾ പെയിൻറ്റിങ് തുടങ്ങിയവ കലയെ സ്വാധീനിക്കുന്നു വലിയ വലിയ കലാകാരന്മാരുള്ള ഒരു നാടാണ് ഞങ്ങളുടേത് അതിൽ തന്നെ കായികമായാലും സിനിമയായാലും കലയായാലും എല്ലാവരും അടങ്ങുന്നൊരു സമൂഹമാണ് ഞങ്ങളുടേത് കായികം എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടി കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കളിക്കുന്ന ഫുട്ബോൾ ഫുട്ബോൾ ഒരു ഒരു നാടിൻ്റെ എല്ലാമായ ഒരു കാലമാണ് ഇപ്പോൾ ഉള്ളത് ക്രിക്കറ്റും ഒട്ടും മോശമല്ല ക്രിക്കറ്റിൻ്റെ അവരുടെ അവർ അവർ അവർക്കിഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് അവരവർ പോകുന്ന ഒരു കാഴ്ച് നമ്മൾ ഈയിടെ കാണുന്നുണ്ട് ഹോക്കി ആയിക്കോട്ടെ സ്കൂളുകളിൽ ഹോക്കി പരിശീനം പരിശീലനം ആരംഭിക്കുന്നത് കാണാനിടയായിട്ടുണ്ട് കൊക്കോ ഇതൊക്കെ കായിക ഇനത്തിൽ വരുന്നതാണ് പിന്നെയുള്ളത് സിനിമയാണ് പലരും സിനിമയോട് അകന്ന് നിന്നിരുന്ന കാലം മാറി ഇപ്പം എല്ലാവർക്കും സിനിമ ഒരു സിനിമ എങ്കിലും ഒരു സിനിമ ഒരാഴ്ച്ചയിൽ ഒരു സിനിമയെങ്കിലും ടീയറ്ററിൽ പോയി കാണുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കലാ കായികം വിനോദം കലാ കായികം സിനിമ എന്ത് ഒരു വിനോദം പരിപാടികളായി ഞങ്ങൾ ഇവിടെ നടത്താറുണ്ട് വിനോദ പരിപാടികളിൽ ഏർപ്പെടും ഏർപ്പെടാറുള്ള ആളുകളും ഇവിടെയുണ്ട്